ആറ് ഏഴ് രണ്ടായിരത്തി രണ്ട് ആറ് ഏ ആറ് രണ്ടായിരത്തി ര മൂന്ന് ഏഴ് നാല് രണ്ടായിരത്തി മൂന്ന് എട്ട് നാല് രണ്ടായിരത്തി ആറ് ഒൻപത് മൂന്ന് രണ്ടായിരത്തി അഞ്ച്